ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ട് വളരെ വ്യക്തമായ രീതിയിലും ആ കളറും ഒരു ഡാമേജും ഇല്ലാതെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയ ആ പ്രോഡക്റ്റ് വളരെ മോശമായിപ്പോയി അതു വളരെ ഡാമേജ്ഡായിരുന്നു കീറിയിരുന്നു പിന്നെ പോരാത്തതിനു ഞാൻ സെലക്ട് ചെയ്ത സൈസുമല്ല കളറുമല്ല അതു കൊണ്ട് അത് കുറച്ച് അധികം എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്തായാലും അത് ഞാൻ റിട്ടേൺ ചെയ്യുകയാണ് അതല്ലാതെ അതു സത്യം പറഞ്ഞാൽ വിഷമായി ഞാൻ ഉദ്ദേശിച്ചത് അതു തന്നെ വിചാ പക്ഷേ അതു സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ് എന്നാൽ കൂടിയും അതൊരു പ്രശ്നമല്ല ഞാനത് റിട്ടേൺ ചെയ്യുകയാണ് വേറെ ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും